എന്നെ കരയിച്ച ഒരു പുസ്തകം എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു സംശയവും ഇല്ലാതെ പറയും അത് ആടുജീവിതം എന്ന പുസ്തകമാണ് ബെന്യമിൻറെ ആടുജീവിതം അത് വായിച്ച് ഒരുപാട് കര കരഞ്ഞിട്ടുണ്ട് അതിലെ കഥാപാത്രമായ നജീബിൻ്റെ ഒരവസ്ഥ നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹം പോയൊരു അദ്ദേഹം കടന്നുപോയൊരു ജീവിതഘട്ടം നമുക്ക് ഓർത്തെടുക്കാൻ കഴിയും അപ്പോൾ ആ അത് കാണും അത് വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ഉള്ളിൽ ഉണ്ടാകുന്നൊരു വിങ്ങൽ അത് വളരെ വലുതാണ് അതിൽ വളരെ വളരെ വേ അതായത് ചിത്രം കാണുന്ന രീതിയിൽ ഒരു സിനിമ കാണുന്ന രീതിയിൽ നമുക്ക് വായിക്കാനായിട്ട് പറ്റും അത് ബെന്യമിൻറെ ഒരു എഴുത്തിൻ്റെ ഒരു രീതി കൊണ്ടാണ് അതുകൊണ്ടുതന്നെ ആ അത് വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സങ്കടം വരും തീർച്ചയായിട്ടും വരും ആ ഒരു രീതിയിലാണ് ബെന്യാമിൻ എന്ന എഴുത്തുകാരൻ ആടുജീവിതം എന്ന നോവൽ എഴുതിയിട്ടുള്ളത് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതായത് നമ്മളെ ചങ്കുലയ്ക്കുന്നൊരു സീനുകളാണ് ഈ നജീബ് നജീബിനെ അവിടുത്തെ അർബാബ് ഉപദ്രവിക്കുന്നതും അതൊക്കെ വളരെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അത് വർണിച്ചിരിക്കുന്നത് അത് അത് അത് വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ മനസ്സ് ഒന്ന് മനസ്സിൽ വിങ്ങൽ ഉണ്ടാവും ആ ഒരു നജീബ് അനുഭവിച്ച ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അത് വായിക്കുമ്പോൾ അതായത് ഒറ്റയടിക്ക് നാ ഒരു ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ പ സാധിക്കും കാരണം നമുക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അടുത്തതെന്താണ് എന്താണ് എന്നുള്ളത് കാത്തിരിക്കാൻ പറ്റാതെ നമ്മളത് ഒരു ഒരു ഒ ഒരു ദിവസംകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ ആ പുസ്തകം വായിച്ച് തീർക്കും ആ പുസ്തകം ആണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു ന ഒരു പുസ്തകം ന നജീബിൻ്റെ ആ ഒരു കഥാപാത്രം അതാണ് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത്